ആ നല്ല വൈദ്യസഹായം തേടാനായിട്ട് ദാരിദ്രർക്ക് ഒരു തടസ്സമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ ദാരിദ്ര്യം അങ്ങനെ കുറവാണെങ്കിലും അങ്ങനെ തുച്ഛമായ ആൾക്കാരുണ്ട് അവർക്ക് നല്ല വൈദ്യത സഹായം കിട്ടണെമെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യം ആണ് അപ്പഴത്തേക്കും അത് ഒത്തിരി ദരിദ്രരായ ആൾക്കാർക്ക് അത് ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോകാറുണ്ട് പിന്നെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് വൈദ്യ സഹായം കൂടുതൽ ലഭിക്കുന്നതിന് ഗവൺമെന്റിൻ്റെ വക ആശുപത്രി ഉണ്ടങ്കിലും അവിടത്തെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോവുകയായെങ്കിൽ കൂടുതൽ സഹായം ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതിന് ഗവൺമെൻറ് ആശുപത്രികളിൽ സഹായം തേടുന്നവരുണ്ട് ഇപ്പഴാണെങ്കിലും ഗവൺമെന്റിൻ്റെ സഹായം തരക്കേടില്ലാതെ പോവുന്നു ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർക്ക് വെള്ളപ്പൊക്കം മുതലായ ബുദ്ധിമുട്ടുകൾ മൂലം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു മാറ്റം സൃഷ്ടിക്കുവാണെങ്കിൽ ഗവൺമെന്റിൻ്റെ വക സേവനങ്ങൾ ഇച്ചിരിയും കൂടെ ഊർജ്ജസ്വലമാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും